ഐഡന്റിറ്റി ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിംഗ് പ്രകടിപ്പിക്കാൻ മലയാളികൾ അവരുടെ ഭാഷ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നു ചോദിച്ചാൽ അത് ഓരോ നാട്ടിലും ഓരോ സ്ലാങ്ങാണ് അപ്പോള് ഇടുക്കി ജില്ലയ്ക്കും കോട്ടയം ജില്ലയ്ക്കും വലിയ സ്ലാങ്ങില്ലെങ്കില് മലപ്പുറം കോഴിക്കോട് ആ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്കും സ്ലാങ്ങ് കേള്ക്കുമ്പോള് നമുക്കു മനസ്സിലാവും ഇപ്പോള് ഓരോരുത്തടെ ടോൺ അതായത് ഇപ്പോള് എന്നാ ഒണ്ടറാ എന്നു ചോദിക്കുന്നതും എന്നാണ്ടറ എന്നു ചോദിക്കുന്നതും തമ്മില് വിത്യാസമുണ്ട് കാരണം ടോൺ വിത്യാസം ഉള്ളത് വരുമ്പോള്ത്തന്നെയാണ് ഏറ്റവും കൂടുതല് ഇതിൻ്റെ ഇടയിൽ അതായത് ടോൺ എങ്ങനെ ടോണിലുണ്ടാവുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുകയാണോ അതോ ദേഷ്യത്തിലാണോ പിണക്കത്തിലാണോ എന്നതു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഓരോ സ്ലാങ്ങ് വ്യത്യാസമുണ്ട് ഓരോ നാട്ടിൽ ചെല്ലുമ്പോള് ഓരോ സ്ലാങ്ങാണ് ആ ഓരോ സ്ലാങ്ങനുസരിച്ചിപ്പോള് കാസർഗോഡ് ഭാഷ ഇടുക്കി ജില്ലയിലുള്ള ആള് കാസർഗോഡ് ചെന്നുകഴിഞ്ഞാല് ഇച്ചിരി ബുദ്ധിമുട്ടും കാരണം അവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാരണം അവിടുത്തെ ഭാഷാ അല്ലേലും നമുക്ക് മലയാളം അവിടത്തെ മലയാളം നമുക്കധികം മനസ്സിലാവുന്ന ടൈപ്പ് മലയാളമല്ല അപ്പോള് അത് കുറേയെക്കെ നമ്മളെ സ്വാധീനിക്കും പിന്നെ ഭാഷ എപ്പോഴും മലയാളം എന്നുള്ളത് കുറേയെക്കെ നമുക്കു മനസ്സിലാവുന്നൊരു കാര്യമാണ് മലയാളം എന്നുള്ളത് മലയാള ഭാഷ അതിപ്പോള് എവിടെയാണേലും ഏത് നാട്ടിലാണേലും മലയാളത്തിൽ മലയാളം സംസാരിച്ചാൽ മനസ്സിലാവും പക്ഷെ അവരവരുടെ സ്ലാങ്ങാവുമ്പോഴാണ് നമുക്ക് അതായത് ഇത് ഐഡന്റിറ്റി ഉള്പ്പെടുത്താന് ഇപ്പോള് ഓരോ സ്ലാങ്ങനുസരിച്ച് ഇപ്പോള് കാസർഗോഡ് സ്ലാങ്ങ് സംസാരിക്കുമ്പോള് എടാ ലിജ്ജെവിടാന്ന് ചോദിക്കുമ്പോള് മലപ്പുറം സ്ലാങ്ങാണെന്നു മനസ്സിലാവും ആ ആള് മലപ്പുറം ഐഡന്റിറ്റി ആണെന്നു മനസ്സിലാവും അങ്ങനെ മലപ്പുറംകാരനാണ് അതുപോലെ തന്നെ ട്രിവാന്ഡ്രമാണെങ്കില് എന്തരപ്പി എന്നു പറയുന്നത് ട്രിവാന്ഡ്രം എന്നുള്ള ആ സ്ലാങ്ങിലോട്ട് പോവും സാധാ ട്രിവാന്ഡ്രംകാരാണെന്നു മനസ്സിലാവും അങ്ങനെ പച്ച മലയാളം സംസാരിക്കുന്ന ആൾക്കാര് പറയുമ്പോഴത്തേക്കും അത് കോട്ടയം ജില്ലക്കാരാണെന്നു പറയാന് പറ്റും അപ്പോള് അങ്ങനെയുള്ള ഭാഷ നമുക്ക് സ്ലാങ്ങുകൾ നമ്മുടെ ഇടയില് ഒരുപാടധികം സ്വാധീനം ചെലുത്തുകയും അത് അയാളുടെ ഒരാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള ചാൻസ് അതായത് ഐഡന്റിറ്റി അതേപോലെതന്നെ സെൻസ് ഓഫ് ബിലോങ്ങിംഗ് കൂട്ടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്